സ്വർണ്ണപ്പണിയെടുക്കാനോ അതെന്തും ആർക്കു വേണമെങ്കിലും ഇപ്പം അത് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഉള്ളത് ചെയ്യാൻ പറ്റും എന്താണെന്നു വച്ചാൽ അങ്ങനെയൊരു താല്പര്യമുണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിലും അതിനെ ചെയ്തു പഠിച്ച് ചെയ്യാം പണ്ടേ രീതിയിലാണത് ഓരോ മേഖലയിലും ഓരോ ആൾക്കാരായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു ഇതില്ല ചെയ്യാനൊരു താല്പര്യമുണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിലും അതു ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കാം നല്ല വൃത്തിയ്ക്ക് ചെയ്യാം അതിനനുസരിച്ച് ജോലിയിലൊരു മുൻ മുൻതൂക്കം ഉണ്ടാവും അതൊക്കെയാണ് കാര്യങ്ങൾ അല്ലാണ്ടിപ്പം നമ്മൾ ഒരു പണി അവർ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ

അതു നമുക്ക് ചെയ്യാനോ ഒന്നിനും പറ്റില്ല നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് താല്പര്യം വന്നാലും മാത്രമാണ് അതിനെ നമുക്ക് അതിൻ്റെ കറക്ട് കാര്യങ്ങൾ ചെയ്യാനും അതിനെ പഠിക്കാനും അത് കംപ്ലീറ്റ് ആക്കാനും ചെയ്യാൻ പറ്റുള്ളൂ